ഹലോ ക്യാബ് ഡ്രൈവറല്ലേ ആ നേരത്തെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതിൻ്റെ ആളാണ് ഞാൻ നിങ്ങൾ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ആ ഓക്കെ ഓക്കെ അപ്പോൾ ആ ബ്ലോക്കിലാണുള്ളത് അല്ലേ ഞാൻ കുറേ നേരമായി വിളിച്ചിട്ട് അപ്പം നിങ്ങളിതേ വരെ എത്താത്തതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് പക്ഷെ നിങ്ങളിവിടെ എത്തിയെന്ന് എൻ്റെ മറ്റേ ആപ്ലിക്കേഷനിൽ കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളിതുവരെ എത്തിയിട്ടും ഇല്ല ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒന്ന് വേഗം ഒന്ന് എത്തുകയാണെങ്കിൽ നല്ലതായിരുന്നു ഞാൻ മറ്റേ പലചരക്ക് കടേൻ്റെ ഫ്രണ്ടിലുണ്ട് ഈ എക്സെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് ഉള്ളത് ആ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ കറക്ട് സമയം ഇവിടെ എത്തില്ലേ ബ്ലോക്ക് കഴിഞ്ഞിട്ട് അല്ലേ ആ എന്തിൻ്റെ ബ്ലോക്കായിരുന്നു അവിടെ ഒരു മരം ലോറി വന്നതല്ലേ ആ ഓക്കെ ഓക്കെ വേറെ വഴികൾ കാര്യങ്ങളൊന്നും ഇല്ല വല്ല ഇടവഴിയോ അങ്ങനെയെന്തെങ്കിലും കയറി എനിക്ക് അത്യാവശ്യമുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് വന്നാലേ എനിക്ക് അതിനകത്ത് പോകാൻ പറ്റുകയുള്ളൂ പെട്ടെന്ന് കിട്ടുന്നതായതുകൊണ്ടാണ് ഞാനെന്തു ചെയ്തത് ക്യാബ് ബുക്ക് ചെയ്തത് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ വേറൊരു വഴി വേഗം വാ കേട്ടോ ഞാനിതാ മറ്റേ എക്സ് പറഞ്ഞൊരു പലചരക്ക് കടയുണ്ട് അതിൻ്റെ ഫ്രണ്ടിലുണ്ട് ഓക്കെ എന്നാൽ വേഗം പോരെ